കലാകാരന്മാരുടെ ക്ഷേമത്തിനായിട്ട് ഒരുപാട് സംഘടനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ കലാകാരന്മാർ ഒരു അവശത അവസ്ഥ ആകുന്ന സമയത്ത് അവശരാകുന്ന കലാകാരന്മാരായി നിൽക്കുന്ന സമയത്ത് അവർക്ക് കയ്യിൽ പൈസ ഉണ്ടാകും പക്ഷേ ഒരുകാലത്ത് അവർ അവശരായി നിൽക്കുന്ന സമയത്ത് അവർക്ക് പൈസയും ഒന്നും കിട്ടുന്നില്ല മ് മതിയായ എന്താ പറയുക കരുതൽ ഒന്നും ഈ ഇന്ത്യ ഇന്ത്യയിൽ അതൊന്നും കിട്ടുന്നില്ല അവരുടെ ജീവിതം തന്നെ മുൻപോട്ട് പോകുന്നത് എങ്ങനെയൊക്കെയോ ആണ് അതുകൊണ്ട് കരുതലും എന്തായാലും അവർക്ക് അതിനുള്ളൊരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത് കലാകാരന്മാരുടെ കലാകാരന്മാരായി നിൽക്കുന്ന സമയത്ത് അവർ വേദികളിൽ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മതിയായ പ്രാധാന്യമൊക്കെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും അവരുടെ കുറെ കഴിയുമ്പോൾ അവരുടെ വയസ്സ് എന്താ പറയുക വാർദ്ധക്യത്തിൽ അവർക്ക് ഒരു കൈത്താങ്ങും കിട്ടുന്നില്ല